ടി വി പ്രോഗ്രാമുകൾ എനിക്ക് കുറെ ടി വി പ്രോഗ്രാം ഞാൻ കാണലുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സീരിയലാണ് ഫ്ലവേഴ്സ് ചാനലിലുള്ള ഉപ്പും മുളകുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ചക്കപ്പഴം ഇഷ്ടമാണ് പക്ഷേ ഉപ്പും മുളകാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ഉപ്പും മുളകിലെ പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഉള്ള അഞ്ചാൾക്കാരാണ് മെയിൻ അഞ്ച് ആറ് ആൾക്കാരാണ് മെയിൻ പഴയപോലെ ഓരോ ദിവസവും ഓരോ കഥകൾ അരമണിക്കൂറാണത് ഉണ്ടാകുക ഏഴുമണിമുതൽ ഏഴര വരെയാണ് ഈയൊരു സീരിയൽ ഉണ്ടാകൽ ഫ്ലവേഴ്സ് ചാനലിൽ അതിൽ ക്യാരക്ടേഴ്സ് പറയുന്നത് നീലു ബാലു പിന്നെ മക്കളായ വിഷ്ണു പാറുക്കുട്ടി കേശു ശിവാനി ലച്ചു അങ്ങനെയുള്ള ആൾക്കാരാണ് പിന്നെ ചിലപ്പോൾ അച്ചച്ചനും അമ്മമ്മയൊക്കെ ഈ ഇതിലായിട്ട് വരും കൂടുതൽ തമാശയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ ഉണ്ടാകൽ ബാക്കിയുള്ള സീരിയലുകളെ അപേക്ഷിച്ച് ഇങ്ങനെ ഇങ്ങനെ പരദൂഷണവും അങ്ങനെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും ഇതിലില്ല ഇത് കോമഡിയായിട്ട് അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവർ ചെറിയ കുട്ടികൾ മുതൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും കാണാൻ പറ്റിയ രീതിയിലാണ് ഉപ്പും മുളകും നടത്തുന്നത് ഇ ഇതിൻ്റിടെ ഓരോന്ന് നിർത്തിയിരുന്നു പിന്നെ ഇതിൽ പിന്നെയും സംപ്രേക്ഷണം തുടങ്ങി ഇപ്പോഴും കുറെ പ്രേക്ഷകരുണ്ട് ഇതിനായിട്ട് പ്രത്യേക ഫാൻ ബേസ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് അത്രയും രസമുള്ള ഒരു പരിപാടിയാണ് ഉപ്പും മുളകും ഉപ്പും മുളകിലും ഓരോ ദിവസം പുതിയ പുതിയ കഥകളാണ് എല്ലാം തുടർച്ചയായിട്ടുള്ള കഥകളല്ല ഉണ്ടാകാറ് ഓരോ ദിവസവും പുതിയ പുതിയ ഇ ഇക്കാലത്തെ ഉള്ള വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇക്കാലത്ത് യോജിക്കുന്ന തമാശകളും അതിനെക്കുറിച്ചുള്ള ഇതൊക്കെയാണ് ഉണ്ടാകുക നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കോമഡി രീതിയിൽ രസകരമായൊക്കോല് അവതരിപ്പിക്കും പിന്നെ അത് ഫ്ലവേഴ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നതും റേറ്റിംങ് കിട്ടുന്നതൊക്കെ ഈ ഉപ്പും മുളകുമെന്നുള്ള പരിപാടിയാണ് ഉപ്പും മുളകും രസമുണ്ടാകാൻ കാരണം കോമഡിയും കാര്യങ്ങളും പിന്നെ ഓലെ സംസാരഭാഷയും പിന്നെ ഒരു വീട്ടിലുള്ള നടക്കുന്ന സംഭവമായതു കൊണ്ട് കുറെ ആൾക്കാർക്കിത് റിലേറ്റബിളായിരിക്കും ഇതിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കാർക്കത് കണ്ടിരിക്കാൻ രസമാണ് അപ്പം കൂടുതൽ ഫാമിലിയായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ ഇതേപോൽക്കത്തെ പരിപാടി കാണുമ്പോൾ എല്ലാവർക്കും ഇത് രസമാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പരിപാടി ഉപ്പും മുളകാണ്